പക്ഷികൾ കൂടുതലും അവരുടെ ഒരു ദിവസം മുഴുവൻ ചെലവഴിക്കുക തീറ്റ തേടിയാണ് അപ്പോൾ നമ്മളെ വീട്ടുമുറ്റത്തേക്കൊക്കെ പക്ഷികളെ അക്ട്രാക്ട് ചെയ്യുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ഏൻ ബഷീർ പറഞ്ഞ കണക്ക് നമ്മൾ എല്ലാവരും ഭൂമിയുടെ അവകാശികളാണ് അപ്പോൾ നമ്മൾ പല മറ്റു ജീവികളുമായിട്ട് സമ്പർക്കത്തിൽ വേണം ജീവിക്കാൻ അപ്പോൾ പക്ഷികളെ അട്രാക്ട് ചെയ്യാൻ നമുക്ക് അവർക്ക് നല്ല വേനലാണ് നല്ലൊരിതാണ് അപ്പോൾ നമുക്ക് അവർക്ക് ധാന്യങ്ങളും വെള്ളമൊക്കെ വെക്കുന്നത് നല്ലതാണ് പക്ഷെ ഹിഡൻ ആയിട്ട് വെക്കുന്നതായിരിക്കും നല്ലത് കാരണം അവർക്കുള്ളിലൊരു പേടിയുണ്ട് അവരെ ആരെങ്കിലും ഓപ്പൺ സ്പേസുകളാണെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടാനുള്ള സാധ്യതകളൊക്കെയാണ് അപ്പോൾ ചെടികൾക്കൊക്കെ ഇടയിലായിട്ട് നല്ല വെള്ളം ചൂടാവാത്ത രീതിയിൽ തണുപ്പുള്ള രീതിയിൽ അങ്ങനെയൊക്കെ എന്താ വെക്കണം എന്ത് നമ്മൾ വെള്ളമൊക്കെ വയ്ക്കുകയാണെങ്കിൽ പിന്നെ പക്ഷികളെ ആകർഷിക്കുമ്പോൾ നമ്മുടെ വീട് വീട്ടിൽ ഈ പക്ഷികൾക്ക് ഉപദ്രവകരമാകുന്ന മറ്റു ജീവികളില്ല എന്ന് ഉറപ്പ് വരുത്തുക പൂച്ചയൊക്കെ പോലുള്ള പൂച്ചയൊക്കെ ആണെങ്കിൽ ഭയങ്കര കാച്ചിങ് ഭയങ്കര എഫിഷൻസി ഉള്ള പൂച്ച ആൾക്കാരാണ് പൂച്ചകൾ അപ്പോൾ ചെറിയ ഭയങ്കര സ്ട്രെങ്ത്തൊന്നും ഇല്ലാത്ത ചെറിയ പക്ഷികളൊക്കെ ആവുമ്പോൾ അവർ പെട്ടെന്ന് അപകടത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ഒരു ഏതെങ്കിലും ഒരു ഇടത്തായിരിക്കണം ഈ പക്ഷികളെ ആകർഷിക്കാൻ വേണ്ടിയുള്ള ധാന്യങ്ങൾ ആണെങ്കിലും വെള്ളവും ആണെങ്കിലൊക്കെ വയ്ക്കാൻ പിന്നെ പക്ഷികൾ വരുമ്പോൾ എന്താ നമ്മളാരും അതിൻ്റെ മുന്നിൽ ചെന്ന് അതിനെ പേടിപ്പിച്ച് വിടുക അങ്ങനെത്തെ പരിപാടികളൊന്നും ചെയ്യരുത് സൈലൻറ്റായിട്ടിക്ക് കൊടുക്കുക അവരുടെയൊരു ബയോ ഡൈവേഴ്സിറ്റി അവർക്ക് വേണ്ട ഒരു ലിവിങ് അറ്റ്മോസ്ഫിയർ നമ്മൾ പക്ഷികൾക്ക് കൊടുക്കുകയാണെങ്കിൽ ഞാൻ വയ്ക്കാറുണ്ട് അതുപോലെ ധാന്യങ്ങളും വെള്ളമൊക്കെ ഞാൻ വയ്ക്കാറുള്ളതാണ് കാരണം എല്ലാവരും സഹജീവി സ്നേഹത്തോടെ ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പോൾ വെള്ളമൊക്കെ ഞാൻ മറ്റാറുണ്ട് ഞാനൊരു കുപ്പിക്കകത്ത് വെള്ളമാക്കിയാണ് തുറന്ന് വെച്ചിട്ടാണ് ഞാനൊരു ചെടിയുടെ കമ്പിൽ തൂക്കിയിട്ടിരിക്കുകയാ അപ്പോൾ ചെറിയ പക്ഷികൾക്കൊക്കെ അവിടെ വന്നിരിക്കാം പിന്നെ ഞാൻ ഒരു പാത്രത്തിൽ ഇങ്ങനെ വെള്ളം മതിലിൻ്റെ അവിടെ വെച്ചിരിക്കും ഒരു ചെടിയുടെ ഷൈയ്ട് ഉള്ള അടുത്താണ് ഞാൻ വയ്ക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ധാന്യങ്ങളൊക്കെ നിലത്ത് പോവുന്നതൊക്കെ മതി തൂത്തുവാരുമ്പോൾ ഒക്കെ തൂത്ത് കൈയ്യിൽനിന്ന് ഇച്ചിരി നിലത്ത് പോയതോ ഒരുപിടി ഉച്ചക്ക് എടുക്കുന്നത് ചോറിനെടുക്കുന്ന കുറച്ച് അരിയോ നെല്ലോ ഒക്കെ മതി അതിന് പിന്നെ പക്ഷികൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാട് പ്രാണികളൊക്കെ തിന്നുന്ന പക്ഷികളൊക്കെയാണ് അപ്പോൾ ഈ ചെടിയിലെ പൂവിലുണ്ട പൂവിൽ വരുന്ന പ്രാണികൾ പൂവിൻ്റെ തുമ്പുകൾ ഈ ഈ ഈ പക്ഷികൾ കഴിക്കുന്ന പുല്ലുകൾ അല്ലെങ്കിൽ കിളിർത്ത ഇലകളുള്ള ചെടികളൊക്കെയാണ് അതൊക്കെ ഒരുപാട് വയ്കുകയാണെങ്കിൽ ഒരുപാട് പക്ഷികളൊക്കെ ഒരൊരു ചിത്രശലഭ ചെടി എന്നൊക്കെ പറഞ്ഞ നമ്മൾ മാർക്കറ്റിൽ കാണുന്ന സാധനങ്ങൾ അത് അതിൻ്റെ ആ ഒരു സെൻറ്റും അതിൻ്റെ ആ ഇലയും അതിൽവരുന്ന പ്രാണികളും അത് ഉണ്ടാക്കുന്ന ഒരു തേനും ഒക്കെ ഈ ചിത്രശലഭത്തെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ചെടിക്ക് ചുറ്റും ഇഷ്ടംപോലെ ചിത്രശലഭങ്ങൾ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് പക്ഷികളെ അട്രാക്ട് ചെയ്യുന്ന പിന്നെ നമ്മുടെ വീട്ടിൽ ഇങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനെ കുഞ്ഞു ജീവികളെ പെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ വലിയ പരുന്തൊക്കെ പോൽത്തുള്ള സാധനങ്ങൾ അട്രാക്ട് ചെയ്യിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മുടെ എഫർട്ടൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്